മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വയനാട് ജില്ല തികച്ചും വിദ്യാഭ്യാസത്തിൻ്റെ മുന്നിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് കാരണം വയനാട് ജില്ലകളിൽ ഒരുപാട് പണിയർ കുറിച്യർ വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്ന ഒരു ജില്ല കൂടിയാണ് വയനാട് ജില്ല അവർ പണ്ടു മുതലേ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും മുൻഗണന കൊടുത്തിട്ടില്ല കൂടാതെ ആ വിഭാഗത്തിൽ അല്ലാണ്ട് താമസിക്കുന്ന ആളുകളും അവിടെ ഉണ്ട് അതുപോലെതന്നെ വയനാട് ജില്ലയിലുള്ള സ്ത്രീകൾ അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തതു കൊണ്ടുതന്നെ ഒരു ജോലി ഇല്ലാതെ അവസ്ഥയിലാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവണതെങ്കിൽ ഭർത്താക്കന്മാരുടെ ഭർത്താക്കന്മാരെ ആശ്രയിച്ചു ജീവിക്കണം എന്നാൽ മറ്റുള്ള ജില്ലകളിൽ താമസിക്കുന്നവർക്ക് വിദ്യാഭ്യാസം ഉള്ളതു കൊണ്ടുതന്നെ ഈയൊരു അവസ്ഥ ഈയൊരു പ്രശ്നം നേരിടേണ്ട ഒരു അവസ്ഥ വരുന്നില്ല